ഹലോ ആരായിരുന്നു അതെയതെയതെ ആ ഓക്കേ

ആ ആ ഉണ്ടല്ലോ ഓ എത്ര ദിവസത്തെ ട്രിപ്പാണ് ആ പത്ത് ദിവസത്തെ ട്രിപ്പാണോ ആ ഓക്കേ പത്ത് ദിവസത്തെ ട്രിപ്പാകുമ്പോള് നമുക്കൊരു നിങ്ങള് തന്നെ എടുക്കില്ലേ നമ്മുടെ നമ്മുടെ ഓഫീസില് നിന്ന് ആൾക്കാരെ വിടുമ്പോള് നിങ്ങള് തന്നെ എടുക്കില്ലേ പൈസയൊക്കെ അവരുടെ ടിക്കറ്റും കാര്യങ്ങളും അതുപോലെത്തന്നെ അതുപോലെ താമസം ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങള് തന്നെ അറേഞ്ച് ചെയ്യില്ലേ ഏകദേശമൊരു നമുക്കിപ്പം ഏജൻസികാർക്ക് ഏകദേശമൊരു പിന്നെ ഒരു ലക്ഷത്തിനടുത്ത് വരും ആ പൈസേൻ്റെ കുഴപ്പമില്ലല്ലോ അല്ലെ ആ ആ ഒരു ജെൻസാണ് ഒരു അതായത് ഒരു ആണുങ്ങളാണ് വരിക നിങ്ങളുടെ കൂടെ നിങ്ങളെപ്പോഴാണ് പോകുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങളോടൊരു തീരുമാനം പറഞ്ഞാല് മതി നമ്മള് അപ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്തുവെയ്ക്കാം ഒരു രണ്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ പറയണം എല്ലാം റെഡിയാക്കി പറയണം എന്നാലെ ഞങ്ങൾക്ക് ആൾക്കാരെ സെറ്റാക്കാൻ പറ്റുകയുള്ളൂ ഉം അങ്ങനെ പറയുകയാണെങ്കില് ഞങ്ങള് അപ്പോഴത്തേക്ക് ഒന്ന് റെഡിയാക്കി വെച്ച് തരാം നിങ്ങളതിന് ഫാമിലിയായിട്ടാണോ അതോ നിങ്ങള് ഒറ്റയ്ക്കാണോ പോകുന്നത് ആ ഓക്കെയോക്കെ ആ നമ്മള് ലാംഗ്വേജ് അറിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കമ്പനിയില് അതും നിങ്ങള് അവരുടെയെല്ലാ കാര്യങ്ങളും നിങ്ങള് നോക്കിയാല് മതി പിന്നെ നമുക്കൊരു ചാർജുമുണ്ട് ഉം അങ്ങനെയാണെങ്കില് നമുക്ക് നിങ്ങളൊരാഴ്ചയ്ക്ക് മുന്നേ വിളിക്കുക പോകുന്നതിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചിട്ട് കൺഫർമേഷൻ പറയണം ആ അപ്പോള് നമ്മള് റെഡിയാക്കിത്തരാം ആ ഡിസ്കൗണ്ട് എന്തെങ്കിലുമൊന്ന് ചെറുതായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങള് നേരിട്ട് കമ്പനിയിലേക്ക് വരുമോ നമ്മളിവിടെ വയനാട് കൽപ്പറ്റ കൽപ്പറ്റയ്ക്ക് നിങ്ങള് വരികയാണെങ്കില് നമ്മള് ലൊക്കേഷനിട്ടുതരാം ആ ഒക്കെയെന്നാല് ശരി കേട്ടോ